ഇപ്പം അതായത് എത്ര മണിക്കൂറ് വൈദ്യുതി ലഭിക്കുന്നുണ്ടെന്ന് വച്ചിട്ടുണ്ടെൽ നമുക്ക് കൂടുതല് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് വൈദ്യുതി ലഭിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കി ഞാ എനിക്ക് പിന്നെ അതായത് സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത് അവിടേക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ഇപ്പം എലെക്ട്രിസിറ്റി ഏതെങ്കിലും ഒരു ദിവസം പവർ കട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലതായത് എന്തെങ്കിലും പണിയോ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരാദ്യമേ പറയും പിന്നെ ജനറേറ്ററ് കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളക്കേള്ളതുകൊണ്ട് നമുക്ക് ഫുൾ ടൈം അതായത് കറൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നൊണ്ട് പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുതി മുടക്കം അതായത് കറൻറ്റ് കട്ട് അതായത് വൈദ്യുതി എന്തെങ്കിലും മുടക്കം കാര്യങ്ങളുണ്ടെങ്കിലവര് ഒന്നൂല്ലേ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊണ്ടെൽ നമ്മള് നേരത്തെ ചെയ്ത് തീർക്കാനും അങ്ങനത്തെയൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ നമുക്ക് വീട്ടിലക്കേന്ന് വച്ചിട്ടുണ്ടെൽ അങ്ങനെ കറൻറ്റ് അതായത് ലൈറ്റ് പോകുന്ന ഒരവസ്ഥ ഇപ്പോളൊന്നുമില്ല ആദ്യത്തെ കാലത്തൊക്കെയുണ്ടായിരുന്നു പവർ കട്ട് അതായത് രാത്രി അതായത് അരമണിക്കൂറ് അല്ലങ്കിൽ ഒരു മണിക്കൂറ് ആ ഒര് ടൈമിലൊക്കെ അതായത് ആദ്യമൊക്കെയുണ്ടായിരുന്നു പക്ഷെ ഇപ്പന്ന് പറഞ്ഞേച്ചാൽ പവർ കട്ടൊക്കെ വളരെ കുറവാണ് അപ്പന്ന് വച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പമുണ്ടാവുന്നില്ല അപ്പം അതിനെക്കുറിച്ച് പറയാനാണെങ്കില് അത്രേയുള്ളൂ അങ്ങനെ വൈദുതി വലിയ മുടക്കം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല